സാമൂഹിക മാധ്യമങ്ങളിൽ നമ്മൾ ഏറ്റവും അധികം ഫോട്ടോകൾ എടുക്കുന്ന ചിത്രങ്ങളെല്ലാം പോസ്റ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലോ അഥവാ ഫേസ്ബുക്കിലോ ആണ് ഇൻസ്റ്റാഗ്രാം ആണ് നമ്മൾ ഏറ്റവും അധികം ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാമൂഹിക മാധ്യമം ഈ ഇടയായിട്ട് നമ്മൾ പിൻട്രസ്റ്റ് എന്ന പിൻട്രസ്റ്റ് പോലത്തെ സൈറ്റുകളിലും കയറി ഫോട്ടോകൾ പോസ്റ്റ് ആ പിൻട്രസ്റ്റ് പോലത്തെ സൈറ്റിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു വരുമാനം നേടാനുള്ള അവസരവും കിട്ടുന്നുണ്ട് നമ്മുടെ ഫോട്ടോ നമ്മളെടുത്തത് ആരെല്ലാം കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അവർക്ക് നമുക്ക് ചെറിയൊരു പേയ്മെൻ്റ് നൽകി ഈ ഫോട്ടോഗ്രാഫ് സ്വന്തമാക്കാനുള്ള അവസരവും അവിടെ ലഭിക്കുന്നതാണ് നമ്മള് ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇത് നമുക്ക് ലൈക്കുകൾ കിട്ടാനും നമ്മുടെ കഴിവുകളൊന്ന് പുറംലോകത്തെ വെളിപ്പെടുത്താനും മാത്രമായിട്ടുള്ള അവസരമായി പോകും അതുപോലെതന്നെ നമ്മള് നമ്മുടെ നമുക്ക് ഉള്ളിലുള്ള ആ കഴിവിനെ നമുക്ക് ആൾ ആളുകളിലോട്ട് എത്തിക്കാൻ പറ്റുന്നൊര് അവസരമായിട്ടാണ് ഞാനിതിനെ എല്ലാം കരുതുന്നത് അതിന് അതിന് പുറമേ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പഴത്തേനും ചിലപ്പോൾ നമ്മുടെ മുഖം ത്തിൻ്റെ ഷേപ്പോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ രൂപമോ കൊണ്ട് നമ്മളൊരു മോഡലാകാനോ അല്ലെങ്കിൽ എന്തേലും പരസ്യത്തിലഭിനയിക്കാനോ അല്ലെങ്കിൽ വലിയ മാധ്യമത്തിലോട്ട് വന്ന് അഭിനയിക്കാനോ ഒക്കെ ഉള്ള അവസരങ്ങൾ തുറന്ന് കിട്ടാനുള്ള ഒരു അതിനും ഇതിൽകൂടെ കണ്ട് വരുന്നുണ്ട്